എൻ്റെ വീട്ടിൽ നിറയെ പൂച്ചെടികളും നിറയെ പഴച്ചെടികളും അല്ലെങ്കിൽ പഴ പഴമുണ്ടാകുന്ന മരങ്ങളുമുണ്ട് പൂച്ചെടികളുടെ വിഭാഗത്തിൽ റോസാ മുല്ല ചെത്തി ചെമ്പരത്തി ഓർക്കിഡ് ആന്തൂറിയം പട്ടത്തി അങ്ങനെ മുതലായ ചെടികളുണ്ട് അവ ഓർക്കിഡ് ആന്തൂറിയം മുതലായവ ഞാൻ മുല്ല തുടങ്ങിയവ പൂക്കടക്കാർക്ക് കൊടുക്കുകയും ബാക്കി വരുന്നവ അതായത് മുല്ലപ്പൂവ് പോൽ മുല്ലപ്പൂവ് പട്ടത്തിപ്പൂവ് മുതലായവ മോളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അവളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവയാണെങ്കിൽ അയൽക്കാർക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് പഴച്ചെടികളാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് വാഴപ്പഴം റംബൂട്ടാൻ പപ്പായ പേരക്ക മുതലായ പ ചാമ്പങ്ങ തുടങ്ങിയവയുടെ മരങ്ങളാണുള്ളത് അവ ഞാൻ ഇവ ഇവയിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളിലൂടെ വിഷ രഹിതമായ പഴങ്ങളാണ് എനിക്ക് ലഭിക്കുക അത് ഞാൻ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളവ അയൽക്കാർക്ക് കൊടുക്കുകയോ കസിൻസിന് കൊടുക്കുകയോ ചെയ്യാണ് ചെയ്യുന്നത്